എൻ്റെ സഹോദരിയായാലും എൻ്റെ മകളായാലും എത്രത്തോളം ഉയർന്ന വിദ്യാഭ്യാസം നേടണമോ അത്രത്തോളം നേടിക്കൊടുക്കണമെന്നാണു ഞാൻ ആഗ്രഹിക്കുന്നത് അതെനിക്കു സാധിക്കുകയും ചെയ്യും ഇന്നത്തെ ഭരണകർത്താക്കളും ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മൾ മാതാപിതാക്കളും വളരെയധികം ഈത്തരത്തിലുള്ള കാര്യത്തിൽ വളരെയധികം ആ ഉയർന്ന രീതിയിൽ ചിന്തിച്ചു തുടങ്ങി അതുകൊണ്ട് അത് അതു കാരണത്താൽ ഇന്നു സ്ത്രീകൾക്കു വിദ്യാഭ്യാസം ഉയർന്ന വിദ്യാഭ്യാസം നൽകാനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എത്രത്തോളം വിദ്യാഭ്യാസവും അറിവും നേടുന്നുവോ അത്രത്തോളം നമ്മള് സമൂഹത്തില് എന്തിനെക്കുറിച്ചും ശരിയെക്കുറിച്ചും തെറ്റിയെക്കുറിച്ചുള്ള ഒരവബോധം പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കു സ്വായത്തമാക്കാനുള്ള സാഹചര്യം ഇന്നത്തെ ഇന്നത്തെ നമ്മളുടെ കാലഘട്ടത്തിലുണ്ട് പഴയ കാലഘട്ടത്തെ വച്ചുനോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കു വിദ്യ അഭ്യസിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും നമ്മുടെ സമൂഹവും ഭരണകർത്താക്കളും നമ്മുടെ വീടുകളിലെ മാതാപിതാക്കളും നമ്മൾക്കു നൽകുന്നുണ്ട് അവസരങ്ങൾ അതു പരമാവധി ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതുപയോഗിച്ച് അത്ര ഉയർന്ന വിദ്യാഭ്യാസം പെൺകുട്ടികൾക്കു നൽകുകയും ചെയ്യണം ഇത്തരത്തിലൂടെ നൽകുമ്പോൾ അവർക്ക് ഈ സമൂഹത്തിൽ അറിവുള്ളതിനോടൊപ്പം തന്നെ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും ഒരു വിവേകത്തോടുകൂടിയും വിവേചനത്തോടുകൂടിയും ആ നേരിടാനും സമീപിക്കുവാനും ഇന്നു പെൺമക്കൾക്ക് അതായത് പെൺകുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസം ലഭിക്കുന്നതിലൂടെ സാധിക്കും ശരി എന്തെന്നും തെറ്റെന്തെന്നും തിരിച്ചറിയാനുള്ള കഴിവും അവർക്ക് ഈ അറിവു നേടുന്നതിലൂടെ സാധിക്കും അതിനാൽ വിദ്യാഭ്യാസം എത്രത്തോളം കിട്ടുന്നുവോ അത്രത്തോളം മക്കൾക്ക് അതു നൽകണമെന്നാണു ഞാനാഗ്രഹിക്കുന്നത് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് അതു ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇന്ന് അത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലകളും അവർക്കു പഠിക്കാൻ അതിനുള്ള സൗകര്യങ്ങളും സാമ്പത്തികമായും സാമൂഹികമായും അവർക്കു വിദ്യാഭ്യാസത്തില് ഉയർച്ച നേടാനുള്ള സാഹചര്യങ്ങളും ഉള്ളതു കാരണം ഇന്നു വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ പെൺകുട്ടികൾക്കു കൂടുതൽ ഉയർച്ചകൾ ലഭിക്കുന്നതിനു യാതൊരു തടസ്സങ്ങളുമില്ല അപ്പോൾ പഴയ കാലഘട്ടത്തെ വച്ചുനോക്കുമ്പോള് ഇന്നു പുതിയ കാലഘട്ടത്തില് ഈ പെൺകുട്ടികൾക്ക് എത്ര എത്ര ഉയർന്ന തലത്തിലും എത്ര കോഴ്സുകള് വേണമെങ്കിലും അവർക്കെടുത്തു വിദ്യാഭ്യാസത്തിലവര്ക്കതിന്റേതായ ഉയർച്ചയും ആ അതിന്റേതായ സൗകര്യങ്ങളും അതിന്റേതായ സഹായങ്ങളും അവർക്കു ലഭിച്ച് ഉന്നത വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് ഈ സമൂഹം അവർക്കു നല്കണമെന്നാണ് എൻ്റെ അഭിപ്രായം